ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പട്ടീടെ കടിയേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മുറിവ് നോക്കീട്ട് അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈദ്യസഹായമൊക്കെ തേടുക ആദ്യക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും നാട്ടു വൈദ്യൻമാരുണ്ടെങ്കിൽ അവരടടുത്തുപോയിട്ട് പച്ചമരുന്ന് കാര്യങ്ങളൊക്കെ വെക്കുവാണ് ചെയ്യുക പക്ഷേ നമുക്കത് എത്ര ന നല്ല രീതിയിലുള്ളൊരു ഇതായിട്ട് തോന്നുന്നില്ല കാരണം എന്തവെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തൊന്നും ഇതിന് വലിയ മരുന്ന് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഏതെങ്കിലും ഒരു പച്ചമരുന്ന് അവരെടുത്ത് വയ്ക്ക ചെയ്യുക അപ്പം പലർക്കും പേവിഷബാധ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏൽക്കുന്ന കൊണ്ട് നമ്മൾ ആശുപത്രിയിൽ പോയിട്ടന്നെ അതിൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെക്കണം അപ്പോൾ അന്നത്തെ കാലത്ത് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കിൾന് ചുറ്റും പതിനൊന്നോ പന്ത്രണ്ടോ ഇഞ്ചക്ഷനടിക്കണം പിന്നെ നമ്മൾ പുളിയുള്ളതൊന്നും കഴിക്കാൻ കഴിക്കാൻ പാടില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇപ്പമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യെണ്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വി എന്താ പറയാ നേരെ പോയിട്ട് കൈക്ക് ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് അന്നും ചെയ്തുകൊണ്ടിരുന്നത്